ഒരു ലോണിൻ്റ ആവശ്യത്തിന് വേണ്ടിയാണേ ഞാൻ വിളിക്കുന്നത് ഒര് ഒര് കാൻറ്റീൻ തുടങ്ങാൻ വേണ്ടി എനക്ക് കുറച്ച് ലോണിൻ്റ ആവശ്യം ഉണ്ട് അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടത് ലോണ് തരുവോ ഗോൾഡ് അല്ലാണ്ട് ലോൺ ഒന്നും കിട്ടില്ല നമ്മള് ഇങ്ങനെ വ്യക്തികൾക്കൊരു ലോണ് കൊടുക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ലാ

നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലം വളരെ കുറച്ച് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വേറെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് സ്ഥലേമേ ഉള്ളൂ താമസിക്കുന്നത് കുറച്ച് സ്ഥലമെ ഉള്ളൂ

ആ എത്ര എത്ര സെൻറ്റ് സ്ഥലം വേണം അങ്ങനെ കണക്കുണ്ടോ ആ ആ ആ ആ ഞങ്ങളൊര് ഒര് ചെറിയൊര് കാൻറ്റീൻ തുടങ്ങണ്ട ഒരു പദ്ധതിക്ക് വേണ്ട വേണ്ടിയാണേ ഞങ്ങൾക്ക് ഒര് ഒന്നര ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ആ നാലാള് കൂടി ചെയ്യുന്നതാണ് അതുമതി ആ ആ ആ ആ ആ ആ ആ വേണ്ട ആ ഗോൾഡ് ഒന്നും വേണ്ട ആ ആ ആ അപ്പം അതിന് എന്തൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് വരുമ്പം ആ മതിയാവും ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എപ്പഴാണ് അപ്പം നാളെ തന്നെ വരാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് കിട്ടുകയാണേൽ നമുക്ക് കുറെ കടമായി പോയിട്ടുണ്ട് കടം ഭയങ്കരമാണ് അതുകൊണ്ട് ഒരു ഒന്നൊന്നര ലക്ഷത്തിൻ്റെ അടുത്ത് കടം വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കൊടുത്ത് തീർക്കണം കടക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ലോണ് ഇല്ല ഇല്ല ഇല്ല വേറ ലോണൊന്നും ഇല്ല ആ ഇല്ല ഞങ്ങൾക്ക് ലോണെന്ന് പറയുമ്പം നമ്മളുടെ കുടുംബശ്രീയിൽ ഉള്ളത് മാത്രമെ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ അല്ലാത്ത ലോണൊന്നും ഇല്ല ആ ആ ആ ആ ഞങ്ങൾക്ക് ഒരാഴ്ച്ച കൊണ്ട് ശരിയാക്കി തരുവോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി